ആ പറയ് പറയ് പറയ് ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ നേരെയാക്കിയിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ ആ നിങ്ങൾ മുകളിലത്തെ ടാങ്ക് ഒന്ന് തുറന്ന് നോക്കിയോ ഉള്ളിൽ വല്ലതും ഇപ്പോൾ വല്ലതും അടയുകയോ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഏത് ഇതിൻ്റെ ഈ വീടിൻ്റെ ബാക്കിലുള്ള ആ പൈപ്പ് ആണോ അതോ ആ ആ ആ ആ ആ അത് ഉള്ളിൽ ഇപ്പോൾ എന്തെങ്കിലും ചളി എന്തെങ്കിലും ആണോ അറിയത്തില്ല പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇത് ഈ സൈഡിൽ ഉള്ളത് കട്ട് ചെയാൻ നോക്കിയിട്ടേ ചളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ടു നമുക്ക് അത് ഒട്ടിക്കാം പിന്നെ അത് പൈപ്പ് ഒക്കെ പഴയ പൈപ്പ് ആയില്ലേ ഇല്ല പൈപ്പിൻ്റെ ക്വാളിറ്റി കുറയാൻ അല്ല ഇതിപ്പോൾ മലമ്പുഴ ഉള്ളതല്ലേ ഗെയ്റ്റിൻ്റെ മുകളിലേക്ക് ആ അത് അതിൻ്റെ പ്രശ്നം ആണ് ഈ മലമ്പുഴ വെള്ളം മുഴുവനായി ചളിയും മണലൊക്കെ ആയിട്ടേ ഇപ്പോൾ എല്ലാവിടേയും ഉണ്ട് ഈ പ്രശ്നം അത് നമ്മുടെ അവിടൊക്കെ കിണറിൽ നിന്ന് ഗെയ്റ്റ് ആണെങ്കിലും ഇത്രേയും ചളിയുടെ പ്രശ്നം വരില്ല ഇതിപ്പോൾ നമ്മൾ മലമ്പുഴയിലത്തെ വെള്ളം ഉള്ള കൊണ്ട് അവർ ഇവിടെ ഫിൽട്ടർ ചെയ്തിട്ടു വരുന്നത് ആണെങ്കിലും ടാങ്കുകളിലൊക്കെ നല്ല പ്രശ്നം വരുന്നുണ്ട് ഈ ചളിയും മണലൊക്കെ അടഞ്ഞിട്ട് അതിപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ഇടക്കിടക്ക് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി ടാങ്കിൽ ഈ വെള്ളം നിൽക്കുന്നതിൻ്റെ പ്രശ്നം ആണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് ആഴ്ച കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ആ നമുക്ക് അത് ശരിയാക്കാം ഈ ബാക്കിലത്തേതും പിന്നെ ബാത്റൂമിലത്തെതും അല്ലേ ആ ഈ ബാക്കിലത്തെ ഇതിൻ്റെ ബാക്കിലത്തെ പൈപ്പും പിന്നെ ബാത്റൂമിലത്തെ പൈപ്പും അല്ലേ ആ ആ ആ ആ ആ ആ അത് നമ്മൾ പറഞ്ഞത് ഈ വെള്ളം വെള്ളം പ്രശ്നം ആണ് ഈ മറ്റെ മലമ്പുഴ വെള്ളത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ആണ് അത് നമ്മൾക്ക് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തിട്ടു ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഒന്ന് വൃത്തിയാക്കിയാൽ മതി ആ അത് നമുക്ക് ഈ പൈപ്പ് മാറ്റാം ഈ ഇതിൻ്റെ ടാപ്പ് നമ്മൾ ഈ പഴയ ടാപ്പ് അല്ലേ ഇതിൻ്റെ ത്രെഡ് ഒക്കെ പോയിട്ടുണ്ട് ആ പുതിയത് ഒന്ന് വാങ്ങിച്ചിട്ട് ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടേ കൺസീല് വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കാം പിന്നെ വേറെ ഒന്നുമില്ലല്ലോ ആ നാളെ പറ്റും ഇന്ന് കുറച്ച് പണി ഉണ്ട് ഇതിപ്പോൾ ഞാൻ ആ പോ പണിക്ക് പോകുന്നതിൻ്റെ ഇടയിലാണ് നേരം ഇങ്ങോട്ട് കയറിയത് ആ അത് കുറച്ച് അത്യാവശ്യം കുറച്ച് എടുത്താൽ മതി നമുക്ക് ഇപ്പോൾ വലിയ പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാ നോക്കിട്ടേ നമുക്ക് എങ്ങനെ എന്ന് വച്ചാൽ നല്ലത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മുഴുവൻ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ കുറച്ച് മതിയല്ലോ ആ ആ അത് എന്തായാലും നോക്കാം നോക്കാം ഞാൻ എന്നാൽ ഇത് എഡി ഇപ്പോൾ എഴുതി തരട്ടെ നിങ്ങൾ പോയി വാങ്ങിക്കുമോ എന്നാൽ ആ ഇതിൽ ഇതിൽ തന്നെ അല്ലേ ഇതിൽ കൂടെ തന്നെ അല്ലേ ബാക്കിൽ പോവുക വഴി ആ ആ ആ ശരി ശരി ആ നിങ്ങൾ ആ പേപ്പറും പേനയും ഒന്ന് എടുത്തേക്ക് ആ ശരി ആ